ഹലോ ആരാ സംസാരിക്കുന്നത് അ ആണ് ആണ് മീറ്റ് ഷോപ്പാണ് ങാ മാഡം നിങ്ങളെന്നാണ് ഇവിടെ നിന്ന് മീറ്റ് മേടിച്ചത് ഓക്കേ

അയ്യോ മേ അതൊരിക്കലും ഇവിടെ നിന്നാകാൻ ചാൻസ് ഇല്ലല്ലൊ മാഡം കാരണം നമ്മളിവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീറ്റാണ് കൊടുക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ള മീറ്റാണ് നമ്മൾ കൊടുക്കുന്നത് മാഡം അത് മാഡം അത് ചിലപ്പോൾ നിങ്ങളിവിടെ നിന്ന് ഞങ്ങൾ തന്നതിന് ശേഷം വെളിയിൽ കുറേ നേരം സൂക്ഷിച്ചു കാണും അതുകൊണ്ടായിരിക്കും നമ്മൾ ഇവിടെ ഫ്രഷ് ആയിട്ട് നല്ല ജീവനുള്ള കോഴിയാണ് നിങ്ങൾക്ക് വെട്ടി തന്നത് ജീവനുള്ള കോഴിയെ മാഡം അങ്ങനെ പറഞ്ഞാൽ ശരിയാവത്തില്ല ഞങ്ങളിവിടെ നിന്ന് നല്ല ജീവനുള്ള പിടയ്ക്കുന്ന കോഴിയെ ഞങ്ങൾ വെട്ടി തന്നു ബാക്കി കാര്യം നിങ്ങളാണ് നോക്കുന്നത് അപ്പം അത് നമ്മുടെ കൈയിലെ കംപ്ലയിൻറ്റ് അല്ല മാഡം ആ തീർച്ചയായിട്ടും അതായിരിക്കും കാരണം ഞങ്ങളൊരു കട നടത്തുന്നതാണ് ഞങ്ങള് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീറ്റാണ് ഇവിടെ നിന്ന് കസ്റ്റമർക്ക് കൊടുക്കുന്നത് മാഡം നിങ്ങൾ അതെ മാഡം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്

ഓക്കെ മാഡം നിങ്ങള് കംപ്ലയിൻറ്റ് പക്ഷെ നമ്മുടെ കയ്യില് ഒരു തെറ്റുമില്ല നമ്മളത് അത് അത് ഉറപ്പായിട്ടും പറയാൻ സാധിക്കും കാരണം നമ്മുടെ കയ്യിൽ തെറ്റില്ല കാരണം നമുക്ക് അറിയാം അത് ജീവനുള്ള നല്ല കോഴിയാണ് നിങ്ങൾക്ക് പ് കണ്ടിച്ച് തന്നത് നിങ്ങളത് കൊണ്ട് ഏതെങ്കിലും സ്ഥലത്തിട്ട് കാണും മാഡം ഇപ്പം നമ്മുടെ കയ്യിൽ നിന്ന് കംപ്ലയിൻറ്റൊന്നും വന്നില്ല പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഒത്ത് തീർപ്പാക്കിക്കൂടെ ഇത് ഞങ്ങളുടെ കയ്യിലെ കംപ്ലയിൻറ്റല്ല എന്നാലും നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഒത്ത് തീർപ്പാക്കാം മാഡം ഒന്ന് നമുക്ക് ഒന്ന് സംസാരിക്കാം നേരിട്ട് സംസാരിക്കുമ്പം നമുക്ക് നോക്കാം നമുക്ക് നേരിട്ട് സംസാരിച്ച് നോക്കാം നമ്മുടെ കയ്യിൽ തെറ്റില്ലെന്നാണ് എൻ്റെ പൂർണ്ണമായിട്ടുള്ള എഹ് ഇത് പക്ഷേ നിങ്ങൾക്ക് പറ്റത്തിലേ വേണേൽ നമുക്ക് ഒന്ന് സംസാരിച്ച് നോക്കാം നിങ്ങള് കംപ്ലെയിന്റ് ചെയ്യാൻ ഒന്നും പോകണ്ട നമുക്ക് ഒന്ന് നേരിട്ട് സംസാരിച്ച് നോക്കാം ഒക്കെ ബൈ